അലോ അലോ ആ ആ ആ എന്താ എന്താ ചേച്ചി ആ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു പിന്നെ അവിടെ എങ്ങനെയുണ്ട് വീട്ടിൽ വീട്ടിലെന്നാ ഉണ്ട് വിശേഷം വീട്ടിൽ ആ ആ ആ ആ ആ ആ അതെ അതെ അതെ ആ

അതെ ആ ആ ആ അതായത് ഇപ്പോൾ ഞാൻ സംഭവം പിന്നെ അത് നമ്മുടെ മെമ്പർൻ്റട്ത്ത് ചോദിച്ചപ്പോൾ മെമ്പറ് പറഞ്ഞത് ഇന്നേ ഇപ്പം നമ്മുടെ റോഡ് പണി സാങ്ഷനായിട്ടുണ്ട് അത് പിന്നെ അതിൻ്റെ പിന്നെ സംബന്ധിച്ചുള്ള വർക്ക് നടന്നോണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഈ പിന്നെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അത് ഏകദേശമൊരു പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഈയൊരാഴ്ച്ച മോശം പറയുന്നത് പറയുന്നത് കേട്ടത് അതായത് അതെല്ലാമൊന്ന് പിന്നെ കുത്തിപ്പൊളിച്ച് നല്ല നെ വൃത്തിയാക്കി വെച്ച് ചെയ്യാനാണ് പ്ലാൻ അതെ അതെ അതെ അതെ അതെ അതെ ആ

അതെ ആ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ മൊത്തവും പിന്നെ മണ്ണെല്ലാം ഒലിച്ചു പോവാണല്ലോ മണ്ണെല്ലാം പോയി പിന്നെ റോഡ് മൊത്തം അലങ്കോലമായിട്ടുണ്ട് ആ അതെ അതെ അതെ അതെ ആ ഇന്നിപ്പം അതേ പിന്നെ ഇപ്പം പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ ഒരു ഒന്ന് മൂന്ന് നാല് രണ്ട് മൂന്ന് ദിവസം പിന്നെ ചെയ്യണം ഒന്ന് പിന്നെ ഇപ്പം ഈ റോഡിൻ്റെ വർക്കെട്ത്തത് പിന്നെ പറഞ്ഞത് പിന്നെ ഒരു രണ്ട് ദിവസം സാറേ ഒന്ന് പിന്നെ ഞങ്ങളോടൊന്ന് സഹകരിക്കണം ഇതൊന്ന് പിന്നെ ചെയ്തൊന്ന് ഭംഗിയാകുന്നത് വരെ നമ്മളതൊന്ന് സഹായിക്കുക സഹകരിക്കണോന്നൊക്കെ പറയുന്നുണ്ടവർ എന്നാലേ അവർക്കതൊന്ന് ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് പറ്റുവൊള്ളു അതെ അതെ ഭയങ്കര പാടാണ് ചേച്ചി പിന്നെ ഇങ്ങനെ ഒരുവിധം അങ്ങനെ പതുക്കെ പതുക്കെ കുന്നിക്കുന്നി കുറച്ച് ദൂരം പോവും പിന്നെ ഇപ്പം പിന്നെ അവിടെ കുട്ടപ്പ് വരെ പോവാൻ കുട്ടപ്പ് വരെ പോയിട്ട് പിന്നെ കുഴപ്പമില്ലല്ലോ കുട്ടപ്പ് വരെ പോകാനുള്ള പ്ലാനാ പാടാണ് അതെ അതെ അതെ അതെ വളരെ മോശമായിട്ട് തന്നാ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റോഡാണ് നം ഇത്രേം പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ റോഡാണ് ഇത്രേം മോശമായിട്ട് അതെ അതെ ഓ ഇനിയിപ്പം ചേച്ചി ഇതിപ്പം പിന്നെ കാരണമെന്ന് പറഞ്ഞാലേ തൽക്കാലം സ്റ്റേ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ ആ സ്റ്റേയുടെ ഇത് കഴിഞ്ഞതും അവർ പിന്നെ പണിക്ക് കയറി വന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇത് തുടങ്ങിയേക്കുന്നത് ആ ആ ഓ ആ ഓക്കെ ചേച്ചി ഓക്കെ